ആ ഹലോ ആരായിരുന്നു ബാങ്ക് മാനേജറായിരുന്നേ

ആ ഉവ്വ് ഉവ്വ എന്ത് എന്തോരം വേണ്ടതാണ് പത്തു ലക്ഷം പാർട്ടികളെല്ലാം പിന്നെ നല്ല നല്ലവരാണോ അടയ്ക്കുന്നവരൊക്കെ ആണോ നമുക്ക് അവരെയൊക്കെ പറ്റി ഗ്യാരണ്ടി ഉവ്വ കൂട്ടുകൃഷി ആ അതെ പിന്നെ ഒരു കൂട്ടുലോൺ ആവുമ്പോള് ഒരു പ്രത്യേകതയുണ്ടേ എല്ലാവരും പാർട്ടികൾ അടയ്ക്കുന്നവരായിരിക്കണം അല്ലെങ്കില് നമുക്ക് പണിവരുമേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുജാമ്യമാണല്ലോ ഉം ആ ഉവ്വ എന്നാലും മന്ത്ലി കുറേശ്ശെയെങ്കിലും മന്ത്ലി കുറേശ്ശെയെങ്കിലും അടയ്ക്കണം കൃഷി വിളവ് എടുത്തിട്ടു മൊത്തം അടയ്ക്കാൻ പറ്റത്തില്ല ആ അതെ എട്ടര ശതമാനത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് എട്ടരയ്ക്കാണു നമ്മള് കൊടുക്കുന്നതേ എട്ടര ശതമാനം ആ പലിശ കുറവിലാണു കൊടുക്കുന്നത് പിന്നെ പാർട്ടികളുടെ ഗ്രുപ്പാവുമ്പോള് അവര് എല്ലാവരും ഒരുപോലെ ആക്റ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരാൾ അടയ്ക്കാതിരുന്നാൽ നമുക്ക് അത് വീതമായിട്ട് അടയ്ക്കേണ്ടിവരും അടയ്ക്കുന്നവർക്കു തന്നെ അങ്ങനെയുണ്ട് എല്ലാവരും അടച്ചാല് മാത്രം ഉം എന്നാല് കുഴപ്പമില്ല ആ തരുന്നതിനു കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ ഇതിനു രേഖകൾ കൊണ്ടുവന്നാല്മതി ആധാർ കാർഡാ ആപ്ലിക്കേഷൻ ഫോമാ രേഖകൾ ആധാർ കാർഡ് വേണം ആപ്ലിക്കേഷൻ ഫോം വേണം പിന്നെ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം വേറെ എന്തെങ്കിലും ലയബിലിറ്റി എവിടെങ്കിലും ഉണ്ടോ എന്ന് അറിയാവുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പട്ടയം അങ്ങനെ വല്ലതും ഉണ്ടോ സ്ഥലത്തിന് പട്ടയം വല്ലതും ആ പട്ടയമുണ്ടെങ്കില് അതിൻ്റെ കരമടച്ച റെസീപ്റ്റും കൂടെ കിട്ടുവാണെങ്കില് നല്ലതാണ് നമുക്ക് ഒരു തെളിവിനായിട്ടേ ആ ഒത്തിരി ഡോക്യൂമെന്റ്സ് ഒന്നും ആവശ്യമില്ല അ ഇത്രയൊക്കെ മതി പിന്നെയൊരു വ്യവസ്ഥയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുജാമ്യമാണേ പത്തു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജാമ്യം നില്ക്കുകയാണ് ആ അപ്പോള് അവരും അടച്ചാലേ അടച്ചില്ലെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം മാഡത്തിനും വരും വരും കൂട്ടു നില്ക്കും നമ്മള്ക്കൊരാൾ കൂട്ടുജാമ്യമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളാ ഒരാൾക്ക് നില്ക്കും അവിടെനിന്ന് ഒരാൾ ഇങ്ങോട്ടും നില്ക്കും അപ്പോള് ആ അവരുംകൂടെ അടയ്ക്കുന്നവരാണോ എന്നു നമ്മള് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുകയുള്ളേ പത്തു വർഷത്തിൻ്റെ ലോണിനു മൂന്നു വർഷമാണ് കെട്ടോ മാഡം മൂന്നു വർഷം മൂന്നു വർഷംകൊണ്ട് തീർന്നാല് മതി നിങ്ങള് കറക്റ്റായിട്ട് അടച്ചുതീർക്കുകയാണെങ്കില് അത് അടച്ചുതീരുമ്പോള് പിന്നെ അത് നമുക്ക് എമൗണ്ട് കൂട്ടി പതിനഞ്ച് ലക്ഷമോ അങ്ങനെ തരുന്നതിനു കുഴപ്പമില്ല പാർട്ടി കറക്റ്റാണെങ്കില് കറക്റ്റാണെങ്കില് വീണ്ടും തരും വീണ്ടും നമ്മള് അടയ്ക്കുന്നത് അനുസരിച്ച് തിരിച്ചും തരും ഒരു തവണ ആ പത്തു പേരും വരണം പത്തു പേരും വരണം പിന്നെ ബോണ്ട് പൂരിപ്പിച്ചു കൊടുക്കണം ആപ്പ്ളിക്കേഷൻ കൊടുക്കാന് ഒപ്പിട്ടുകൊണ്ടുവന്നാല് മതി അതുകഴിഞ്ഞാല് ആ വേണം വേണം പിന്നെ പൈസ കൊടുക്കാൻ നേരത്ത് അവര് അവരുടെ ഫോട്ടോ എടുത്തുകൊടുക്കണം ബോണ്ട് പേപ്പർ പൂരിപ്പിക്കാൻ എല്ലാവരും വരണം ക്യാഷ് കിട്ടുമ്പോള് എല്ലാവരും വേണം എല്ലാവരും വേണം

ആ വന്നേര് ഒരു ഒരു രണ്ടു മണി കഴിഞ്ഞ ശേഷം പോരേ രണ്ടുമണിക്കുശേഷം

ആ ആയിക്കോട്ടെ